ആ അതെ മാഡം പറഞ്ഞോളു ആ പരിപാടി നടത്തുന്ന ആൾ തന്നെയാണ് ആ ഓക്കെ

മേഡം നമ്മളിപ്പോൾ വെഡ്ഡിങ്ങിന്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും നമ്മൾ ചെയ്യും ആ ഏഹ് ഓൾമോസ്റ്റ് എല്ലാം നടത്തും പിന്നെ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ പന്തലിന്റെ പരിപാടി ഫുഡ്ഡ് അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്

നമുക്കിപ്പോൾ ഓരോന്നിനും ഓരോ ചാർജാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ പറയുക ഈ ലെറ്ററൊക്കെ അടിക്കുന്നതിനൊക്കെ എത്ര കാർഡാണോ ആതിനനുസരിച്ചാണ് റേറ്റ് വരിക പിന്നെ ഓക്കെ അപ്പോൾ നമുക്കൊരു കാർഡിന് ഒരു നൂറ് രൂപ വച്ചൊക്കെ കൂട്ടിയാൽ മതി

ആ ഏകദേശം നമ്മൾ നോർമൽ ബഡ്ജറ്റ് പറഞ്ഞതാണ് അത് പിന്നെ അതിന്റേയും ബെറ്ററ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം പിന്നെ ഇപ്പോൾ ക്യാമറമാനൊക്കെ ആണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോട്ടോഷൂട്ട് അതിന് മുമ്പ് പ്രീ വെഡ്ഡിങ്ങ് ഷൂട്ട് തൊട്ട് തുടങ്ങും ആ അതൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന്റെ ക്വാളിറ്റി ഏതിന്റെ ബേസിലാണ് ആ ഒരു ഇതിൽ പറയുന്നത് പിന്നെ പന്തലും വീഡിയോ അതൊക്കെ വരുമ്പോൾ അതിന് അനുസരിച്ച് ബഡ്ജറ്റിൽ വ്യത്യാസം വരും പിന്നെയുള്ളതെന്നു പറയുമ്പോൾ പന്തലും കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ എണ്ണായിരം രൂപ തൊട്ട് പന്തലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നോർമല് പന്തൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ടുള്ള പന്തലൊക്കെ വേണം എന്നല്ലേ പറഞ്ഞത് ഓഡിറ്റോറിയമോ ആ ഓക്കെ ഓക്കെ ഓഡിറ്റോറിയം നമുക്ക് അറേഞ്ച് ചെയ്യാം പിന്നെ മണ്ഡപം അലങ്കരിക്കുക അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഡിസൈനർ എന്നു പറയുന്ന ഒരു ടീം ഉണ്ട് അവരുടെ അടുത്ത് കുറേ സ്റ്റോക്കും കാര്യങ്ങളൊക്കെയുണ്ട് റെഡിമേയ്ഡ് ആയിട്ടുള്ള മണ്ഡപവും കാര്യങ്ങളൊക്കെയുണ്ട് അതെല്ലാം അവര് ചെയ്തു തരും ആ ഫ്രഷ് ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഫുഡ്ഡല്ലേ ആ ഓക്കെ ഓക്കെ ഞാനൊന്ന് മാഡത്തിനോട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് എത്ര മെമ്പേർസാണ് രണ്ടായിരം പേർക്കുള്ളതാണോ എത്ര പേര് വരും ആ ഓക്കെ രണ്ടായിരം പേര് അപ്പം ഏകദേശം ഒരു ബേസ് ഞാൻ നോക്കിയിട്ട് ഫുഡ്ഡും കാര്യങ്ങളും എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നോർമലൊരു ബഡ്ജറ്റ് ഞാൻ തയാറാക്കിയിട്ട് അയച്ചു തരാം മാഡത്തിന് ഞാൻ വാട്സപ്പ് ചെയ്തു തരാം ആ ഓക്കെ ആ ഓക്കെ മാഡം